ഇന്ത്യ എന്നത് ഒരുപാട് കലാകായിക മേഖലയിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കൺട്രി തന്നെയാണ് അപ്പോൾ അതിൽ ഡാൻസ് എന്ന് പറയുന്നത് നൃത്തകല നൃത്തരൂപം ഒരുപാടുണ്ട് അതായത് ഭരതനാട്യം കഥകളി മണിപ്പൂരി ഡാൻസ് കഥക്ക് മോഹിനിയാട്ടം കുച്ചിപ്പുടി അങ്ങനെ ഒരുപാട് തരത്തില് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ തരത്തിലുള്ള ഡാൻസ് ഫോംസ് ഉണ്ട് അതുപോലെ ഒപ്പന കോൽക്കളി അങ്ങനെ വിവിധതരം നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരു ഓരോ സംസ്ഥാനങ്ങള്ക്കും അവരുടേതായ ഓരോ നൃത്ത രൂപങ്ങളുണ്ട് അതുപോലെതന്നെ ഭരതനാട്യം മോഹിനിയാട്ടം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഏതു സംസ്ഥാനത്തും വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആര്ട്ട് ഫോമ് തന്നെയാണ് അതുപോലെ പ്രഭുദേവ രമാ ദേവി അങ്ങനെ ഒരുപാട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ആര്ട്ടിസ്റ്റുകളും ഉണ്ട്